ഇടിയപ്പം ആ ഉണ്ടാകും ഉണ്ടാകും ആ ചായ ഉണ്ട് ഉണ്ട്

ഇവിടെ ഒരു പ്രശ്നവുമില്ല ഇവിടെ ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല നല്ല ഫുഡ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം

ആ ഞങ്ങള് ഫുഡ് എടുത്തുവച്ചേക്കാം പതിനഞ്ച് പേർക്ക് ഉള്ള ഫുഡ് എടുത്ത് വെച്ചേക്കാം

ആ എന്താ വേണ്ടത്

പിന്നെ ചപ്പാത്തി നമ്മള് ആറു രൂപക്കാണ് കൊടുക്കുന്നത്

ഉം